എന്തായിരുന്നു ആ ഓക്കെ ആ ആ നിങ്ങൾക്ക് എന്തായിരുന്നു ലക്ഷണം എന്തായിരുന്നു ലക്ഷണം എന്തൊക്കെ ആയിരുന്നു ആ ഹാ

ആണോ അല്ലാതെ പിന്നെ ആരോഗ്യപ്രവർത്തകർ എന്തെങ്കിലും ടാബ്ലറ്റ് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുത്തന്നായിരുന്നോ ആണോ അത് കഴിക്കുന്നുണ്ടോ സമയത്തിന് മേല് വേദന ഉണ്ടല്ലേ പാരസെറ്റാമോൾ ഒക്കെ കഴിക്കുന്നുണ്ടോ ആ പാരസെറ്റാമോൾ കറക്റ്റ് മൂന്നുനേരം കഴിക്കണം എന്നാലേ നമുക്ക് അതൊരു ഡോസ് ആവുള്ളൂ പിന്നെ അതേപോലെ നല്ലവണ്ണം ഭക്ഷണം കഴിക്കണം കാരണം നമുക്കത് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് ശരീരത്തിന് അത് താങ്ങാനാവുള്ളൂ പിന്നെ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും ഉൺ ആർക്ക് വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ സ്ഥിതീകരിച്ചിട്ടുണ്ടോ ആ അപ്പം അവരുമായിട്ട് അധികം സംസാരിക്കാനോ പിന്നെ അങ്ങനെയൊന്നും പാടില്ല പിന്നെ അവരോട് മാസ്ക് ഒക്കെ ഇട്ടിട്ട് നിൽക്കാൻ പറയണം നിങ്ങൾ മാസ്ക് ഇട്ടിട്ടേ എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരിക്കണമെങ്കിൽ മാസ്ക് ഇട്ടിട്ടേ സംസാ സംസാരിക്കാൻ പാടുള്ളൂ പിന്നെ ഒരു മീറ്റർ അകലെ നിൽക്കണം എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ തന്നെ ആ അപ്പോൾ കുട്ടി ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം പിന്നെ കുട്ടിക്ക് പാൽ കൊടുക്കുന്നതിനൊന്നും നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത് പിന്നെ അത് നമുക്ക് വേറെ വഴി ഇല്ലല്ലോ അപ്പോൾ പാൽ കൊടുത്തുകഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈം വേറെ ആരുടെ അടുത്തെങ്കിലും കുട്ടീനെ കൊടുക്കുക അതിനുമുന്നേ കുട്ടീനെ എടുക്കുന്നതിനു മുന്നേ സാനിറ്റൈസർ ഒക്കെ ഇട്ടിട്ട് കൈ നല്ലവണ്ണം കഴുകുക എന്നിട്ട് മാത്രം കുട്ടീനെ എടുക്കുക കാരണം നമുക്ക് വരുന്നത് പോലെ അല്ല കുട്ടിക്ക് വന്നാൽ അത് ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും നമുക്കത് താങ്ങാനുള്ള ശേഷിയുണ്ടല്ലോ കുട്ടിക്കത് ഉണ്ടാവണമെന്നില്ല അപ്പം അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം പിന്നെ വീട്ടിൽ വയസ്സായവരുണ്ടെങ്കിൽ അവരോട് അധികം നമ്മൾ സമ്പർക്കത്തിന് പോകാൻ പാടില്ല ആ ആ ഇനിയിപ്പം രണ്ടുദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടീനെയും ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനെയും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം ജസ്റ്റ് പിന്നെ ഈ പനിയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യണം മാറിയോ എന്നറിയാൻ വേണ്ടി പിന്നെ എന്തെങ്കിലും കുഴപ്പം ഉണ്ടെങ്കിൽ ആരോഗ്യപ്രവർത്തകരുടെ അടുത്ത് നമ്മളൊന്ന് പറയാം ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചുപറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് വരാൻ പറയാം പക്ഷേ നമുക്ക് എന്തായാലും അങ്ങോട്ട് എത്താൻ പറ്റില്ല നമുക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് ഇൻഫോം കൊ ഇൻഫോർമേഷൻ കൊടുക്കാനേ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ വരാൻ പറയാം കേട്ടോ എന്തെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് വിളിക്കണം നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് ആ ഓക്കെ എന്നാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരെ അവരെ അറിയിക്കാം കേട്ടോ അവർ വരും നിങ്ങളുടെ അടുത്ത് ആ ഓക്കെ ശരി